ഹലോ ഞാൻ ഇന്ന് രാത്രി ഒരു പത്തര കഴിയുമ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യമായിട്ട് ട്രെയിൻ സ്റ്റേഷൻ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാത്രി വൈകിയ നേരത്ത് ഏതെങ്കിലും ക്യാബുകൾ അല്ലെങ്കിൽ ഓട്ടോകൾ ലഭ്യമാണോ എന്നുള്ളതൊന്ന് എന്നെ അറിയിക്കാൻ സമയം വരുന്നത് പത്തരയാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു പത്തേ കാലൊക്കെ കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം പത്തേ കാലിന് വീട്ടിൽ ഇറങ്ങണമെങ്കിൽ പ്രധാനവായിട്ടും പിക്കപ്പ് സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലെ എലന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സൈഡിലായിട്ടൊരു മെഡിക്കൽ ഷോപ്പൊണ്ട് ആ മെഡിക്കൽ ഷോപ്പിൻ്റെ മോളിലോട്ടൊരു ടാറിട്ട റോഡൊണ്ട് ആ ടാറിട്ട റോഡിലൂടെ ഒരു അഞ്ച് മിനുറ്റ് വരുമ്പം ഫാസ്റ്റിലെ ആദ്യമേ കാണുന്ന രണ്ട് നില വീടാണ് എൻ്റെ വീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കുഴപ്പമില്ല പ്രധാനവായിട്ടും എനിക്ക് അറിയേണ്ട കാര്യം ഈ രാത്രീൽ ആരെങ്കിലും വരാൻ തയ്യാറാണോ അഥവാ വരാൻ തയ്യാറാണെങ്കിൽ തന്നെ ഞാൻ അതിൽ പോകുവാൻ സുരക്ഷിതയാണോ എനിക്ക് എന്ത് കൊണ്ട് ഞാനത് സുരക്ഷിതമായി കണക്കാക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടെ എനിക്കറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ രാത്രി വൈകിയത് കൊണ്ട് തന്നെ പൈസയിൽ എന്തെങ്കിലും കൂടുതൽ വരുന്നുണ്ടോ എന്നും എനിക്ക് അറിയേണ്ടതുണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടൊരു കാര്യം സമയമാണ് കൃത്യം പത്ത് കാലിന് തന്നെ ഞാൻ പറഞ്ഞ ഏലന്നൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ ശ്രമിക്കുക കാരണം അവിടുന്ന് പത്ത് മിനിറ്റ് യാത്രയാണ് റെയിൽ വേ സ്റ്റേഷനിലോട്ടുള്ളത് കൃത്യമായി പത്ത് മിനുറ്റിനുള്ളിൽ എത്തിയാൽ തന്നെയും ലേറ്റ് അവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത്കൊണ്ടാണ് അഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ തരുന്നത് കൃത്യമായി പത്തേ കാലിന് എൻ്റെ പിക്കപ്പ് സ്ഥലത്ത് എത്തുക അതിന് ശേഷം പത്തരയ്ക്ക് മുമ്പ് തന്നെ എന്നെ ട്രെയിൻ സ്റ്റേ സ്റ്റേഷനിലെത്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഓട്ടോയോ അല്ലെങ്കിൽ ക്യാബോ ലഭ്യമാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക